കൃഷിക്ക് മറ്റു തുടർച്ചയായുള്ള ജലവിതരണത്തിനും ജലം കൃഷിയും കാര്യങ്ങളൊക്കെ ഇവിടെ സാധാരണാ ഞങ്ങളെ ഈ നാട്ടിൽ തോടുകളെയാണ് ആശ്രയിക്കുന്നത് ഇത് ഒരു മലയോര മേഖലയാണ് മലയോര മേഖലകളെ താഴ്വരകളുണ്ട് അതുപോലെ തന്നെ കുന്നിൻ പ്രദേശങ്ങളും താഴ്വരകൾ കുന്നിൻ പ്രദേശങ്ങളിലൊക്കെ നല്ല കൃഷിയും കാര്യങ്ങളുമൊക്കെയുള്ള സ്ഥലമാണ് പക്ഷെ ജലസേചനത്തിൻ്റെ അഭാവം ഇവിടെ ഉണ്ട് ജലസേചന സൗകര്യം കുറവാണ് ഈ താഴ്വരകളിൽ നിന്ന് കുളങ്ങൾ കുത്തി അവിടെ ജല സ്രോതസ് കണ്ടെത്തി അവിടെ നിന്ന് പൈപ്പിൽ മോട്ടറിൽ അടിച്ചു മോട്ടർ അടിച്ചു ഈ കുന്നിൻ പുറങ്ങളിലെ സ്റ്റോറ് ചെയ്തു അവിടെ നിന്ന് ജല ജലസേചനം നടത്തി കൃഷി ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കുകയാണ് എങ്കിൽ ധാരാളം ഭക്ഷ്യവിളകൾ ഇവിടെ ഉൽപാദിപ്പിക്കാൻ കഴിയും അതിനുള്ള പിന്നെ ചെയ്യാനുള്ള താല്പര്യമുള്ള ആൾക്കാരും കഴിവുള്ളവരും ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ അതിനുള്ള അഭാവം ഇവിടെ ഉണ്ട് അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അഗ്രിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻ്റും കൃഷി കൃഷി വകുപ്പും സംയുക്തമായിട്ട് സഹകരിച്ചു കൊണ്ട് ഇവിടെയുള്ള കർഷകർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണ് അത് അത്യാവശ്യമായ കാര്യമാണ് അത് ചെയ്തു കൊടുക്കേണ്ടത് അത് അത് ഇവിടെ തോടുകളും കുളങ്ങളിലും കുളങ്ങളുമൊക്കെ കുത്തി അതിൽ നിന്ന് വെള്ളം മുകൾ പ്രദേശങ്ങളിൽ പമ്പ് ചെയ്തു ജലസേചനത്തിന് വെള്ളം നനയ്ക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ ധാരാളം തെങ്ങും കവുങ്ങും മറ്റ് പച്ചക്കറികളും ഭക്ഷ്യവിളകളുമൊക്കെ ഉൽപാദിപ്പിക്കുവാൻ പറ്റുന്ന സ്ഥലമാണ് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിയാണ് ആ കുടിവെള്ള പദ്ധതിയിൽ ജലം ഉപയോഗിച്ചുകൊണ്ട് ജലസേചനം നടത്തുക സാധ്യമല്ല അത് വളരെയധികം പണ ചെലവ് വരുന്നതാണ് അത് തന്നെയുമല്ല കാർഷിക ആവശ്യങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും ആ വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളതുമല്ല അത് കുടിവെള്ളമാണ് അപ്പം അതുകൊണ്ട് കർഷകരുടെ പ്രശ്നം പരിഹരിക്കുന്നതിനായി മറ്റു ജല സ്രോതസ്സുകൾ കണ്ടെത്തി അവർക്ക് ഇത്തരത്തുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ആവശ്യമാണ്